ചെടികൾക്ക് അനുയോജ്യമായ മണ്ണാണ് ഉപയോഗിക്കുന്നത് മണ്ണ് ക കറുത്ത മണ്ണാണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം ചെടി വെച്ചു കഴിഞ്ഞാൽ ചെടിക്ക് വളം ഉപയോഗിക്കുകയെന്നു പറഞ്ഞാൽ ചാണകവും വെള്ളം കലക്കി ഒഴിക്കും വിവുല്ല വെള്ളം കലക്കി ഒഴിക്കും മുട്ടത്തോടിടും അങ്ങനെ ഓരോ ഇതുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് രാസവളമൊന്നും ചെടിക്ക് ഉപയോഗിക്കാറില്ല ചെടികൾ നല്ല വളമിടണെ മുട്ടത്തോട് ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി നല്ല ഇതായിട്ട് വരും പിന്നെ ചില ചെടികൾക്ക് ഓരോ ചെടികൾക്ക് അതിൻ്റേതായ ഉപയോഗിക്കേണ്ടതാണ് മണ്ണിൻ്റെ ഇതുണ്ട് മണ്ണ് ചില ചെടികളിൽ വെച്ചാൽ മണ്ണിൽ വെച്ചാൽ ചെടി പിടിക്കത്തില്ല അപ്പം അതിനനുസരിച്ചുള്ള വളങ്ങളും ഇതും ഉപയോഗിക്കാറുണ്ട് കറുത്ത മണ്ണാണെങ്കിലും ചുവന്ന മണ്ണാണെങ്കിലും ഏത് മണ്ണയാലും അതിനനുസരിച്ച് ആ മണ്ണിലുള്ള വളവും അതിൻ്റെ ഇതും മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെടികൾ വെച്ചാൽ അതിനനുസരിച്ചുള്ള വളവും ഉപയോഗിക്കണം അല്ലാതെ നമ്മൾ വെറും മണ്ണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സാ ചെടി ഉണ്ടാകത്തില്ല അതിനനുസരിച്ചുള്ള വളവും അതിനനുസരിച്ചുള്ള മണ്ണും നോക്കി അത് കറക്റ്റ് ചെയ്തിട്ടു ചെയ്യണം